രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുപ്പത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ആഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ഏഴ് നാല് രണ്ടായിരത്തി പതിമൂന്ന് എട്ട് ആറ് രണ്ടായിരത്തി പതിനഞ്ച്